ഹലോ അലക്സ് ഇത് സാറയാണ് സംസാരിക്കുന്നത് എനിക്കൊരു ചെറിയൊരു ആവശ്യത്തിനു വേണ്ടിയാണ് നിന്നെ ഇപ്പോൾ വിളിച്ചത് നിനക്ക് തിരക്കൊന്നും ഇല്ലല്ലോ ഞാനെന്താ ആവശ്യമെന്നു വെച്ച് കഴിഞ്ഞാല് എനിക്ക് അടുത്ത വെള്ളിയാഴ്ച തൃശ്ശൂർ വരെ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാന് ഊബറ് വിളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ നിനക്ക് ആകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് അപ്പോൾ പാലക്കാട്ടീന്ന് തൃശൂർ വരെ ഞാന് ഊബറിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്കവിടെ അത്യാവശ്യമായിട്ട് ഒരു കാര്യമുണ്ട് അതിപ്പോൾ എനിക്ക് നേരത്തെ തന്നെ എത്തും വേണം അപ്പോൾ നിനക്കാവുമ്പോൾ ഇതിനെക്കുറിച്ച് ധാരണ ഉള്ളതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ് ഊബറില് ഡ്രൈവർ ഒക്കെ കംഫർട്ടബിൾ ആണോ എങ്ങനെയാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഒന്ന് വിളിച്ചത് അപ്പോൾ അതിൻ്റെ ഫീ നീ അങ്ങനെ പോയിട്ടുണ്ടാകും അല്ലോ എനിക്കറിയാം നീ പോയതായിട്ട് അറിയാം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയുമോ എഹ് എങ്ങനെ നിനക്ക് കുഴപ്പമില്ലാന്നാണോ ഞാൻ ഈ വെള്ളിയാഴ്ച പോകാനാണ് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പോകും തൃശൂർ വരെ ഊബറില് പോകാന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നീ റേറ്റിംഗ് എത്ര കൊടുക്കും ഊബറിന് നീ റേറ്റിംഗ് എത്ര കൊടുക്കും എങ്ങനെയാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ആ നിനക്ക് ആവുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടല്ലോ അപ്പോൾ നീ അതിനെക്കുറിച്ചൊന്നു പറഞ്ഞാല് കൊള്ളാമായിരുന്നു അതായത് നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അതിൻ്റെതായ ഒരു ക കംഫർട്ട്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഒരു ഊബറില് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിയുന്ന നിങ്ങളോടല്ലേ ചോദിക്കുക മ് അപ്പോൾ എങ്ങനെയാണ് നീ ഡ്രൈവറിനും നീയോ നീയൊക്കെ അതില് പോയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ഫീഡ്ബാക്ക് കുഴപ്പമില്ലെങ്കില് ഞാനെന്തായാലും ഊബറില് തന്നെ പോകാനാണ് ഉദ്ദേശിക്കണത്